ആ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ടച്ച് ഫോണൊക്കെ ഇറങ്ങിയ ഒരു ടൈമും കാര്യങ്ങളക്കെയാണ് ആ സമയത്തൊക്കെ നമുക്ക് മൊബൈൽ റീചാർജിന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതീലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഐഡിയ റിലൈൻസ് എയർടെല്ല് ആ പിന്നെ വൊഡാഫോണ് ഇങ്ങനത്തെ സിമ്മുകളായിരുന്നു കൂടുതലയിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഇതൊക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു കാർഡ് രൂപത്തിലാണ് നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഒരു ഇരുന്നൂറ് എം ബിക്ക് പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഇങ്ങനെയൊക്കെയായിരുന്നു വന്നോണ്ടിരുന്നത് നല്ല രീതിയില് പെട്ടന്ന് നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ തീർന്നു പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു അന്ന് പിന്നെ ഫോർ ജിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ത്രീ ജീൻ്റെ ഒരു തുടക്കമായിരുന്നു ആ ടൈമിലൊക്കെ പക്ഷെ ത്രീ ജീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാരുടേയും ഫോണിലൊന്നും കിട്ടില്ലായിരുന്നു പിന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പിന്നെ വന്ന മാറ്റമാണ് നല്ല രീതിയിലുള്ള ടച്ച് ഫോണും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ നമുക്ക് നെറ്റ് ഉപയോഗം കൂടി അതായത് ഇന്റർനെറ്റിൻ്റെ ഉപയോഗം കൂടി നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റില് യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം ജിയോന്ന് പറഞ്ഞിട്ടൊരു സിമ്മും കാര്യങ്ങളൊക്കെ വന്നു അത് എന്താ പറയുക ഫുള്ള് അൺലിമിറ്റഡ് നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മള് കൂടുതലായിട്ടും ഇപ്പോൾ യൂസ് ചെയ്തോണ്ടിരിക്കണത് ജിയോന്ന് പറഞ്ഞിട്ടൊരു നെറ്റാണ് അതിന് മെയ്നായിട്ട് ഒരു മാസമെന്ന് പറഞ്ഞാല് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ റീചാർജാണ് മെയ്നായിട്ട് വരുന്നത് ഇപ്പോൾ ആറ് ഞാനിപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ആറു മാസത്തേക്കാണ് അറുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്കാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നേന്ന് വേണമെങ്കിൽ പറയാം